ഏറ്റവും കൂടുതൽ തുന്നുക തുന്നുന്ന കാര്യമെന്നു വച്ചാൽ ഞാൻ കർട്ടൻ്റെ തുണികളാണ് തുന്നുന്നത് അത് ഏറ്റവും അധികം ഇഷ്ടത്തോടെയും ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് ഞാൻ എന്തു കൊണ്ടെന്നാൽ ഏതു തരത്തിലുള്ള തുണിയും നിർമ്മിക്കാനും നമുക്ക് ഒരു അഴകിനു വേണ്ടിയിട്ട് തന്നെ ഈ കർട്ടൻ ഞാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പല രീതിയിലും പല രീതിയിലും നമുക്ക് കർട്ടൻ ചെയ്യാവുന്നതാണ് ഏറ്റവും വേഗത്തിൽ ചെയ്യുന്നതെന്നു വച്ചാൽ പണ്ടത്തെ ഒരു തയ്യൽ രീതിയെന്ന് പറയുമ്പോൾ നമുക്ക് ചവിട്ടി തയ്ക്കുന്ന രീതിയുള്ള മെഷീനുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പം വന്നിട്ട് പലതരം അത് ഓഹ് ഡെവലപ്പായി അത് പുരോഗമിച്ച് അത് മോട്ടറായി ഇപ്പം സെൽഫ് മോട്ടറായിട്ടുണ്ട് അപ്പം അധികം വലിയ ബുദ്ധിമുട്ടില്ലാതെതന്നെ നമുക്ക് തയ്ക്കാം പണ്ട് നല്ല പാടുപെട്ട് ഇപ്പം അഞ്ചെണ്ണമൊക്കെ തയ്ച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് ഒരു പത്തു പതിനഞ്ച് എണ്ണമെങ്കിലും തയ്ക്കുന്ന രീതിയിലാവും അങ്ങനയാണ് ഇപ്പം നമുക്ക് ഓരോന്നും ചെയ്തെടുക്കുന്നത്